അപ്പം എന്താന്ന് വെച്ചാൽ നമ്മളുടെ നമ്മുടെ എൻ്റെ എൻ്റെ നാട്ടില് ഈ ഹോസ്പിറ്റൽസ് ഒക്കെ സൗകര്യങ്ങൾ വളരെ കുറവാണ് അപ്പോൾ മുമ്പ് തൊട്ടേ ഭയങ്കര കുറവാണ് ആക്ച്ചുയലി നമ്മളുടെ നാട്ടില് ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യായ്ക ഉണ്ടായാൽ മീൻസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ചില എന്തെങ്കിലും ആയെങ്കില് അവരെ നേരെ കൊണ്ടുപോകുന്നത് ഒന്നെങ്കിൽ മംഗലാപുരത്തേക്ക് അല്ലെങ്കിൽ കോഴിക്കോടേക്ക് അല്ലെങ്കിൽ കണ്ണൂരേക്ക് അങ്ങനെ സ്റ്റേറ്റ് വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ വെച്ചാല് നമ്മുടെ നാട്ടില് ഭയങ്കര ഹോസ്പിറ്റല് വരുന്നതില് കുറെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നുവെച്ചാല് കുറെ ഉണ്ടായിരുന്നു കുറെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമാണ് ഈ കോവിഡ് നൈൻറ്റീൻ ഉണ്ടായിരുന്നത് അതായത് കൊറോണ വരുന്നത് ആ കൊറോണ വന്നതിന് ശേഷം കുറച്ചെങ്കിലും ഡെവലപ്മെൻറ് ഉണ്ടായെന്ന് വെച്ചാല് നമ്മളുടെ നാട്ടില് ഞാനിപ്പോൾ കാസർഗോഡ് ഉണ്ടായത് ഇപ്പം ചട്ടൻചാലില് ഇത് കോവിഡ് നൈൻറ്റീൻ വെച്ചാല് ടാറ്റ ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു ഹോസ്പിറ്റൽ വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എന്ന് വെച്ചാല് എങ്ങനെയാന്ന് വെച്ചാല് ചിലര് മാസത്തിനുള്ളില് വിത്തിൻ മന്ത് വിത്തിൻ എ മന്ത് എന്ന് വെച്ചാല് ഒരു മാസത്തിനുള്ളിലാണ് അത് കേട്ടിട്ട് ആയാലും അവിടെ രോഗികളെ പ്രവേശിപ്പിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ എന്താന്ന് വെച്ചാല് നമ്മളുടെ ഗവർമെന്റ് ആശുപത്രി എന്നൊക്കെ പറയുമ്പോൾ അവിടെ പോകില്ല ട്രീറ്റ്മെൻറ് ഒക്കെ എടുക്കണം ട്രീറ്റ്മെൻറ് എടുക്കുമ്പോൾ ഒരു ഒരു സമയത്ത് ഡോക്ടർമാര് ഉണ്ടാകുന്നില്ല അങ്ങനെ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം നമ്മളുടെ നാട്ടില് വെച്ചാല് ചില പിന്നെ പ്രൈവറ്റ് ക്ലിനിക്കിലേക്കെല്ലാം അപ്പോൾ പോകും അതൊക്കെ ചെറിയ ചെറിയ സൂ ചെറിയ ചെറിയ അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ ക്ലിനിക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകും അപ്പം കുറച്ചു ഡോക്ടർമാരൊക്കെ ഉണ്ട് നമ്മളുടെ നാട്ടിൽ അപ്പോൾ അവരൊക്കെ നോക്കുന്നവരുണ്ട് മീൻസ് നാരണ ഡോക്ടർ ബഷീർ ഡോക്ടർ അങ്ങനെ കുറച്ച് ഡോക്ടർമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നല്ല രീതിയില് ട്രീറ്റ്മെൻറ് ചെയ്ത്കൊണ്ട് അതേപോലെ അത്യാസന്ന നിലയിലൊക്കെ ആകുമ്പോൾ പക്ഷെ നല്ലോണം പറ്റുമ്പോൾ നല്ലോണം എന്തെങ്കിലും ആയി പോയെങ്കിൽ പെട്ടെന്നൊരു ഇ സി ജി അങ്ങനത്തെ അല്ലേൽ മീൻസ് ഇ സി ജി അല്ല ഈ ഐ സി യു വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കില് നമ്മളുടെ നാട്ടില് അതിന് പറ്റിയ സാമഗ്രികള് ഉണ്ടായിട്ടില്ല കുറച്ച് മുമ്പ് ഇപ്പോൾ എന്താന്ന് വെച്ചാല് കുറച്ച് മെച്ചപ്പെട്ട ഒരു രീതിയില് ഇപ്പോൾ വരുന്നുണ്ട് പിന്നെ ഗവർമെന്റ്കളും ഇപ്പോൾ കുറച്ചു പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു ഇപ്പോൾ അവര് അവരിപ്പോൾ നല്ല രീതിയില് ട്രീറ്റ്മെൻറ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താന്ന് വെച്ചാല് ബെറ്റർ ഓപ്ഷൻസ് ഒക്കെ എന്ന് വെച്ചാല് കുറെ ബെറ്റർ ഓപ്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഗവർമെന്റ് ഹോസ്പിറ്റൽ തന്നെ കുറച്ച് കൂടി മെച്ചപ്പെട്ട് പിന്നെ കുറച്ച് നല്ലേ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ ഇപ്പോൾ നമ്മളുടെ നാട്ടില് വന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോറോണെന്റെ ടൈമില് നമുക്ക് ഒര് കോറോണെന്റെ ടൈമില് ഏകദേശം ഭ ഭയങ്കരമായ ഒരു ചേഞ്ച് വെച്ചാൽ എന്താ പറയുക നമ്മളുടെ കാസർഗോഡ് ടാറ്റ ഹോസ്പിറ്റല് ചട്ടങ്ങാല് ഭാഗത്ത് ഒന്ന് വന്ന് അതെന്ന് വെച്ചാല് ഒരു മാസത്തിനുള്ളില് അത് പണിത് അവിടേക്ക് രോഗികളെ പ്രവേശിക്കാൻ തുടങ്ങിയിട്ട് ഉണ്ട് അതിന് അപ്പോളേക്കും അത്രയും പെട്ടെന്നായിരുന്നു ആ മാറ്റം വന്നത് എന്ന് വെച്ചാല് ഒരു സഡെൻ സഡെൻ ഇംപ്രൂവ്മെന്റ് ആയിരുന്നു അത് എന്ന് വെച്ചാല് നമ്മള് ഒട്ടും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മാറ്റം നമ്മളുടെ നാട്ടില് വരുമെന്നും ഇങ്ങനെ ഒക്കെ ആകുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അവിടെ ഉള്ള നമ്മളുടെ നാട്ടിലുള്ള രോഗികള് കൂടാതെ പുറമെ ഉള്ള രോഗികള് കൂടി എന്ന് വെച്ചാല് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്നും പുറത്ത് നിന്ന് വരെ അവിടുത്തേക്ക് രോഗികളെ കൊണ്ടുവരാൻ തുടങ്ങി മീൻസ് അതൊക്കെ ഭയ ഭയങ്കരമായ വെച്ചാല് ഒരു ആംബുലൻസില് അവര് എന്തൊരു വേഗത്തില് അപ്പോൾ നമ്മൾ ഞാന് അവിടെ കാണാൻ ആ അവിടെ ടൗണിൽ പോയിട്ട് പെട്ടെന്നൊരു ആംബുലൻസ് ഒരു പോക്ക് പോകുന്നത് ഞാൻ അത് കാണലുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു മാറ്റം വന്ന ഒര് ഫീല് നമുക്ക് കിട്ടി പിന്നെ വെച്ചാല് നമുക്ക് പിന്നെ പെട്ടെന്ന് അത് കഴിയാതാകുമ്പോൾ പിന്നെ ഇപ്പോൾ നേരെ

അതിപ്പോൾ ആയൂർവേദിക്കിന്റെ വിഭാഗത്തിലായാലും ഹോമിയോ പൊതിക്കായാലും ഇംഗ്ലീഷ് മരുന്നായാലും എല്ലാം നോക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ എന്തെന്ന് വെച്ചാല് പിന്നെ കുറച്ചു മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ എന്താന്ന് വെച്ചാല് മിംസിന്റെ അതേപോലത്തെ വിൻ ടച്ച് വിൻ ടെച്ച് വെച്ചാല് മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് എന്ന് വെച്ചാല് കാസർഗോഡ് ടൗണിൽ തന്നെ വന്നൊരു ഏറ്റവും നല്ല ഒര് മാറ്റം തന്നെയാണ് അത് വെച്ചാല് മൾട്ടിസ്പെഷ്യാലിറ്റി വെച്ചാല് നല്ല മികച്ച ട്രീറ്റ്മെൻറ് കിട്ടുന്ന ഒരു ഭാഗമാണ് ഈ മൾട്ടിസ്പെഷ്യാലിറ്റിയില് പെടുന്ന ഹോസ്പിറ്റൽ ഒക്കെ വരുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ വിൻ ടച്ച് പോലത്തെ ഹോസ്പിറ്റൽ വിൻ ടച്ച് പിന്നെ കിംസ് ഇതൊക്കെ വരുന്നത് നല്ലൊരു വളരെ നല്ലൊരു വലിയൊരു നല്ലൊരു നല്ലൊരു വലിയ വലിയ മാറ്റം തന്നെയാണ് അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറയും പോലെ അപ്പോൾ എനിക്ക് എനിക്ക് കാണാൻ നല്ല ഒരു സന്തോഷം ഉണ്ട് കാരണം വെച്ചാല് പെട്ടെന്നൊരു മാറ്റം നമ്മളുടെ നാട്ടില് വന്നല്ലോ പെട്ടെന്നൊരു ട്രീറ്റ്മെൻറ് ഇപ്പോൾ ആവശ്യം വന്നാല് നമുക്കിപ്പോൾ പോകാനും ട്രീറ്റ്മെൻറ് എടുക്കാനുമൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ നാട്ടില് കൊണ്ടുവന്നു പിന്നെ ഗവർമെന്റില് ആണെങ്കില് ഗവർമെന്റിൽ മുമ്പൊക്കെ മെഡികൽസ് മെഡിക്കല് ഭയങ്കര വീക് ആയിരുന്നു ഡോക്ടർമാരൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു എന്ന് വെച്ചാല് ഗവർമെന്റിലേക്ക് വരാൻ കുറച്ച് മടിയുള്ള ഒരു കൂട്ടരുണ്ടായിരുന്നു പക്ഷേ എന്താന്ന് വെച്ചാല് ഇപ്പോൾ അങ്ങന അല്ല ഇപ്പോൾ ഗവർമെന്റ് കുറച്ചു ഇംപ്രൂവ്മെന്റ് നമ്മളുടെ നാട്ടില് കൊണ്ടു വന്ന് ഇപ്പോൾ നമ്മളുടെ ഹോസ്പിറ്റൽസ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് കുറച്ചും കൂടി ഒരു ആധുനിക മോഡേൺ രീതിയില് കൊണ്ടുവന്ന് കുറച്ചു നല്ലൊരു ഡെവലപ് ആക്കി ഇപ്പോൾ നമ്മളുടെ നാട്ടില് ഇപ്പോൾ ഇപ്പോൾ വലിയ ഒരു ചാലഞ്ച് ഇപ്പോൾ മെഡിക്കൽ ഫീല്ഡില് ഇപ്പോൾ നമുക്ക് അധികം വലിയ ഒരു ചാലഞ്ച് ഇല്ല ഫേസിങ് ആക്കാന് ഇല്ല പക്ഷേ എന്നാലും ഉണ്ട് ഇതിന്റെ ഇടയ്ക്കു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ ഒരു നാട്ടിൽ തന്നെ ഉള്ള അടുത്തൊരു സുഹൃത്താണ് അവന് മരണപ്പെട്ടുപോയി വെച്ചാല് ബൈക്ക് ആക്സിടെന്റ് ആയിരുന്നു അവന് ബൈക്ക് ആക്സിടെന്റ് ആവുകയും ബാക്കില് വന്ന് ബാക്കില് നിന്നും ബൈക്ക് ആക്സിഡെന്റ് ആയി അവനെ നേരെ മംഗാലാപുരം കൊണ്ടുപോയി തലക്കായിരുന്നു അടി കൊണ്ടത് അപ്പോൾ മംഗലാപുരത്ത് എത്തിക്കുമ്പോളത്തേക്ക് അവൻ പോയി നമ്മളെ എല്ലാ വിട്ട് വിട്ട് പോയി അവൻ അവന് അവന്റെ ആത്മാവിന് നല്ല ശാന്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർഥിക്കുന്നു പിന്നെ എന്താ വെച്ചാല് അവന് വിട്ട് പോയി നമ്മളെ അപ്പോ ഭയങ്കരമായ ഒരു വിങ്ങലായിരുന്നു നമ്മളുടെ നാട്ടിലൊക്കെ ചില ഭയങ്കരമായൊരു വിങ്ങലായിരുന്നു നമ്മളുടെ നാട്ടിലൊക്കെ വെച്ചാല് ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ പഠിക്കുന്നുണ്ടായ ചെക്കൻ ആണ് നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യത്തിലും ഇടപെടുകയും എല്ലാ കാര്യത്തിനും മുമ്പില് നിൽക്കുന്ന ഉണ്ടായ ഒരു ചെക്കനാണവൻ ചെക്കനായിരുന്നു അപ്പോൾ നല്ല ഒരു ചെക്കനായിരുന്നു അവന് എന്താ ചെയ്യുക പെട്ടെന്നൊരു ഷോക്ക് ആയിരുന്നു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ പിന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നേൽ ചിലപ്പം അവനിപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നേനെ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചുപോയി ആ സമയത്താണ് ആ സമയത്ത് വിൻ ടച്ച് മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒന്നും വന്നില്ല നമ്മളുടെ അടുത്തേക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ തോന്നുന്നു ഇപ്പം മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒക്കെ വന്നതും കുറച്ചും കൂടി ഒരു ഡെവലപ് ആയതൊക്കെ എനിക്ക് അതിന്റെ കഥയറിയില്ല ശെരിക്കും എന്നാലും ഞാനൊരു ഊഹത്തില് പറയുകയാണ് അപ്പോൾ എന്തെന്ന് വെച്ചാല് നമ്മള് പറയുന്നതെന്ന് വെച്ചാല് ഇത് നല്ലൊരു തീരുമാനം എന്ന് വെച്ചാല് നല്ലൊരു ഒരു നമ്മുടെ നാടിന് അറിയപ്പെടുന്നത് വന്നു അവരുടെ ട്രീറ്റ്മെൻറിന്റെ ബേസിലാണ് നമ്മുടെ നാട് അറിയപ്പെടുന്നത് ഇപ്പോൾ കോഴിക്കോട് നോക്കുകയാണെങ്കില് കോഴിക്കോട് ഹോസ്പിറ്റല് കണ്ണൂര് മിംസ് ഹോസ്പിറ്റല് ഒക്കെ പെട്ടെന്ന് നമുക്ക് അറിയുന്ന ഒരു അറിയപ്പെടുന്നതാണല്ലോ സർവീസിന്റെ ഭാഗമായി അറിയപ്പെടുന്ന ഒരു പിന്നെ തലശ്ശേരിയില് കാൻസറിന്റെ സെന്ററില്ലേ കാൻസർ ചികിൽസക്ക് മാത്രം വിവിധ സ്ഥലത്ത് നിന്ന് എന്താ പറയുക സി എം സി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഉണ്ട് അതൊക്കെ ഒരു നല്ലൊരു ഇതാണ് പിന്നെ പിന്നെ എൻ്റെ ഒരു പേർസണൽ അനുഭവംന്ന് വച്ചാല് എൻ്റെ ഫാദറിന് ഒരിക്ക ആക്സിഡെന്റ് ഇണ്ടായി അപ്പോ തലക്കായിരുന്നു അടി അപ്പോ തലക്കടി കൊണ്ടപ്പോ റൈറ്റ് സൈഡിലെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു മൂപ്പർക്ക് അപ്പോൾ എൻ്റെ ഉപ്പക്ക് കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ എനിക്ക് നല്ല ഒരു സങ്കടമായെന്ന് വെച്ചാല് എനിക്കിത് ചെയ്യാൻ പറ്റുമൊ എന്നറിയില്ല ഇത് എല്ലാം ദൈവത്തിന്റെ കൈയ്യിലല്ലേ അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാല് ഈ ഇവിടെ നാട്ടിലില്ല അങ്ങനത്തെ ഒരു ഹോസ്പിറ്റല് നല്ലൊരു ഐ സ്പെഷ്യാലിറ്റി ക്ലിനിക് ഇല്ല അപ്പോൾ നമ്മള് നേരെ പോകുവാന്ന് വെച്ചാൽ ച ചെന്നൈയിലോട്ടേക്ക് പോയി എന്ന് വെച്ചാല് കാസർഗോഡ് നിന്ന് ചെന്നൈയിലോട്ടേക്ക് നമ്മൾ പോയി അവിടെ ട്രീറ്റ്മെൻറ് എടുത്തു കുറെ ടെസ്റ്റും കാര്യങ്ങളുമൊക്കെ നോക്കി ലാസ്റ്റ് മനസിലായത് ഞരമ്പിലേക്ക് കൊണ്ട ഒരടിയാണ് ആ ഞരമ്പ് ചിലപ്പോൾ താനേ ശരിയാകും അല്ലെങ്കിൽ പിന്നെ അത് ശെരിയാവാൻ ചാൻസ് ഇല്ല ഉണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി വന്നത് അപ്പോൾ ട്രീറ്റ്മെൻറ് ഒക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുക നമ്മളുടെ നാട്ടിലുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടിയിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ കുറെ കാശ് ചിലവാകും കുറെ പൈസ എല്ലം കുറെ കൈയിൽ നിന്ന് കുറേ പൊട്ടി പൈസ എല്ലം കുറെ പൊട്ടിയിരുന്നു കുറച്ചൊന്നുമല്ല നല്ലോണം പൊട്ടിയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു നമ്മളുടെ നാട്ടില് ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റല് ഉണ്ടായിരുന്നേൽ നമുക്ക് ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലൊ എന്തേലും പറ്റിയാൽ തന്നെ പെട്ടെന്ന് നമ്മളെ നാട്ടില് അടുത്ത് തന്നെ വേഗം കൊണ്ടുപോകാം വേഗം കൊണ്ടുപോയിട്ട് അവിടെ അഡ്മിറ്റ് ആക്കാം വേഗം കൊണ്ടുപോയിട്ട് വേണ്ടിയ ചികിൽസ കൊടുക്കാം അങ്ങനെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടു നിരീച്ചുകൊണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് നാട്ടിൽ നിന്ന് നടന്നില്ല ഇനിയും കുറച്ച് ബെറ്റർമെന്റ്സ് വരാനുണ്ട് വെച്ചാല് സിംഗിൾ ആയിട്ടുള്ള ഒരു മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് അല്ല നമുക്ക് വേണ്ടത് എല്ലാ വിഭാഗത്തിലും പെട്ട എല്ലാ കാറ്റഗറിയില് പെട്ട എല്ലാ വേണം നമുക്ക് നാട്ടില് ആകുമ്പോൾ പെട്ടെന്നൊരു അത്യാഹിതം സംഭവിച്ച് കഴിഞ്ഞാല് തന്നെ നമ്മളുടെ നാട്ടില് അഡ്മിറ്റ് ആക്കാമെന്ന് വെച്ചാൽ നമുക്കും വേണ്ടേ ഒരു ഹോസ്പിറ്റല് ഇപ്പോൾ ബെറ്റർമെന്റ് ആകുന്നുണ്ട് ബെറ്റർ ആകുന്നുണ്ട് പക്ഷേ ഇനിയും ബെറ്റർ ആകണം അതൊക്കെയാണ് എൻ്റെ ഒരു ഒരു എന്താ പറയുക എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാല് ഇനിയും ഒരു നാട്ടില് എല്ലാത്തിന്റെയും എല്ലാ സപ് എല്ലാ സ്പെഷ്യാലിറ്റി ക്ലിനിക്കും വേണം ഇപ്പോൾ ഇപ്പോൾ കണ്ണിന്റെ ആയാലും ഇപ്പോൾ ഇപ്പോൾ മീൻസ് ഹാർട്ടിന്റെ ആയാലും ഇപ്പോൾ ഇൻറ്റെൻസീവ് കൂടെ ഉള്ളില് എല്ലാ ഭാഗത്തിനും ഓരോരോ ഡിപാർട്ട്മെൻറ് ഉണ്ടല്ലൊ അപ്പോൾ കിഡ്നിന്റെ വേറെ അങ്ങനെ ഇങ്ങനെ എല്ലം കുറെ ഉണ്ടല്ലൊ അപ്പോൾ എല്ലാത്തിന്റെ ഭാഗമായിട്ട് ഒരു ഡീപ് മീൻസ് ഒരു ഫുൾ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെ പോയാല് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ നല്ല ചികിൽസ കിട്ടുന്ന ഒരു ബെറ്റർമെന്റ് ഇനിയും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താന്ന് വെച്ചാൽ ചെയ്യുക വെച്ചാൽ ഞാൻ ചെയ്യും പിന്നെ എന്താന്ന് വെച്ചാല് എല്ലാവരും പറയാനുള്ളത് പറഞ്ഞ് കേൾപ്പിക്കുക കഴിയുന്ന കഴിയുന്നത്രയും പോകണം എന്താന്ന് വെച്ചാല് ഗവർമെന്റിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ എത്തിക്കണം അതെല്ലാം നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ അതിനുള്ള ഉള്ള പ്രക്രിയ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നാട്ടുകാരും കൂടിയിട്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാല് നാട്ടില് ഇംപ്രൂവ്മെന്റ് വന്നു വന്നിട്ടില്ല എന്നല്ല ഇംപ്രൂവ്മെന്റ് ഇനിയും വരണം എന്ന് ഞാന് ആഗ്രഹിക്കുന്നത് എന്നുവെച്ചാല് ഇപ്പോൾ നമുക്ക് ഉണ്ട് വെച്ചാല് അത്യാഹിതം വിഭാഗത്തില് ചികിൽസിക്കുക ഇവിടെയാണ് ഒന്നോ രണ്ടോ കാറ്റഗറി മാത്രമേ നമ്മളുടെ നാട്ടില് ഉള്ളു പ്രത്യേകിച്ച് കാസർഗോഡ് കാസർഗോഡ് എന്ന് വെച്ചാല് പിന്നോക്കം നിൽക്കുന്ന ഒരു ഒരു ജില്ലയാണെന്ന് മുൻപ് ഒരു ടോക്ക് ഉണ്ട് മുന്നേ ഒരു വർത്താനം ഉണ്ട് അതാണ് മുന്നേ ഒരു കേൾവി ഉള്ളതാണ് അപ്പോൾ ആ കേൾവി മാറണം ഒരു ചിന്താഗതി മാറണം കാസർഗോഡും മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും മറ്റതും എല്ലാം വരണം എല്ലാ ചികിൽസ ഇവിടെ ലഭ്യം ഇവിടെ അവൈലബിൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണം നമ്മൾ ഇപ്പോൾ തൊട്ട് അപ്പുറത്ത് ഉള്ള നാട്ടിൽ നിന്ന് പെട്ടെന്ന് അത്യാഹിതം സംഭവിച്ചാൽ ഇവിടുത്തേക്ക് കൊണ്ടുവരാനും പറ്റണം അങ്ങനത്തെ എല്ലാം ഒരു പുരോഗമന ചിന്താഗതിക്കാരനാണ് നമ്മളുടെ നാടും ഞാനും നമ്മളുടെ നാട്ടുകാരും ഒക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറെ പ്രവർത്തനങ്ങൾ നമ്മള് നടത്തുന്നുണ്ട് നടത്തി പോകുന്നുണ്ട് അപ്പം അതെല്ലാം ശരിയാകും എന്നുള്ള ഒരു ഹോപ്പില് ചെയ്യുന്നതാണ് അപ്പം ശരിയാവണം ശെരിയായി വരണം എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു

നാട് ഇംപ്രൂവായങ്ങി ഹോസ് നാടിന്റെ ചുറ്റും ഉള്ളതില് നോക്കുമ്പോൾ ഹോസ്പിറ്റൽ ബേസ് എടുക്കുമ്പോൾ തന്നെ ഇംപ്രൂവ് ആയിന് ഇനിയും കുറച്ചുകൂടി ഒരു ഇംപ്രൂവ്മെൻറ് വരുത്തിക്കണമെന്ന് ഞാൻ ഞാന് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാല് ആഗ്രഹങ്ങളല്ലെ പറയാൻ പറ്റു ബാക്കിയൊക്കെ അതുപോലെ നടക്കും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്